യോഗാ ക്ലാസ്സുകളിലും കൂടിയിട്ടുണ്ട് വീട്ടിലും ചെയ്തിട്ടുണ്ടും യോഗാ ക്ലാസ്സുകളിൽ പോകുമ്പോഴത്തേക്കും ട്രെയ്നറിൻ്റെ സഹായത്തോടെ ചെയ്യാം പോസ്റ്ററൊക്കെ കറക്റ്റ് ചെയ്യാനും വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ തരാനും ട്രെയ്നർ കാണും കൂട്ടത്തോടെ ആയിരിക്കും വേറെയും ആൾക്കാരൊക്കെ കാണും പക്ഷേ വീട്ടിലാകുമ്പോഴത്തേക്കും ഒറ്റക്കായിരിക്കും തെറ്റു പറ്റിയാലും തിരുത്തി തരാനാരും കാണില്ല ആ തെറ്റു തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു കൊണ്ടിരിക്കും പിന്നെ വീട്ടിലാകുമ്പോഴത്തേക്കും ഒറ്റക്കായിരിക്കും കൂടെ ആരും കാണത്തില്ല പക്ഷേ ശാന്തമായിട്ടു ചെയ്യാൻ കഴിയുന്നത് വീട്ടിലാണ് പക്ഷേ എന്നാലും അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് തെറ്റുകൾ തിരുത്താനും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനും ആരും കാണത്തില്ല